പ്രാചീന സംസ്കാരത്തിൽപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷെ ഇന്ന് ആ സംസ്കാരത്തിൽ നിലനിന്നു കൊണ്ട് വന്നിരുന്ന പല കലാരൂപങ്ങളും ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ കലാരൂപങ്ങൾ പലതരത്തിലുള്ള കലാരൂപങ്ങൾ ഇന്ന് നിലവിലുണ്ട് കേരളത്തിലാണെങ്കിൽ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം അങ്ങനെയുള്ള പലതരം കലാരൂപങ്ങൾ ഇതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി അങ്ങനെ പലതരത്തിലുള്ള ആസാം മണിപ്പൂർ എന്ന് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മണിപ്പൂരി അങ്ങനെ ഒരുപാട് കഥക്ക് തുടങ്ങിയ ഒരുപാട് നൃത്തരൂപങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഇന്ന് പല നൃത്തരൂപങ്ങളും അവർ അതിൻ്റെ സംസ്കാരത്തിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു നിലവിലാണുള്ളത് പ്രധാന കാരണം എന്നു പറയുന്നത് സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് ഒരു കലാരൂപം പഠിച്ചെടുക്കാനോ അതിനുള്ള ചിലവുകളും എല്ലാം വഹിക്കുവാനുള്ള യാതൊരുവിധ സാമ്പത്തിക ശേഷിയും ഇല്ല അപ്പഴത്തേനും പൊതുവിലായിട്ട് ആരും ഈ കലാരൂപങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യം ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുമാത്രമല്ല പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരുന്ന പല കലാരൂപങ്ങൾ പോലും ഇന്ന് അന്യം നിന്ന് പോകുന്ന തലത്തിൽ മാറുന്ന അതായത് ആ കലാരൂപങ്ങൾ ഇഷ്ടപ്പെടാത്ത പുതിയൊരു തലമുറ ഇന്ന് നിലവിലുള്ളതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും അതു മാത്രമല്ല അതു മാത്രമല്ല കലാരൂപങ്ങൾ ഇന്ന് ന്യൂ ജനറേഷൻ എന്ന രീതിയിൽ പലതരത്തിലുള്ള കലാരൂപങ്ങൾ വരുന്നതനുസരിച്ചു നമ്മുടെ പാരമ്പര്യമായി പ്രാചീനകാലത്ത് നിലനിന്നിരുന്ന നമ്മുടെ തലമുറ പിൻ നമ്മുടെ മുൻ പാരമ്പര്യത്തിൽപ്പെട്ട വ്യക്തികൾ കൊണ്ടു നടന്ന കുറച്ചു കലാരൂപങ്ങൾ അന്യംനിന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്ന് കാണാനായിട്ട് പ്രധാനമായും സാധിക്കുന്നത് നമ്മൾ ഇന്ന് ഒരു ക്ഷേത്രങ്ങളിൽ പോയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും തെയ്യം തിറ തുടങ്ങിയ പടയണി തുടങ്ങിയ കലാരൂപങ്ങൾ പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളിൽ ദിവസവും നടത്തി വന്നിരുന്ന കലാരൂപമാണ് പക്ഷെ ഇന്ന് ഈ ഉത്സവങ്ങളുടെ സമയത്ത് മാത്രമാണ് നമുക്ക് ഈ കലാരൂപങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലാതെ നമുക്ക് കാണാനായിട്ടൊന്നും സാധിക്കുകയില്ല പിന്നെ നമ്മുടെ പുതിയ തലമുറ നമ്മുടെ കുട്ടികൾക്ക് ഈ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കലാരൂപങ്ങളെക്കുറിച്ചു യാതൊരു യാതൊരു ഇതും നമുക്ക് അറിയാൻ സാധിക്കുകയില്ല കുട്ടികൾ പുസ്തക പുുഴുക്കളായി കലാരൂപങ്ങളോട് യാതൊരു പ്രാതിനിധ്യവും ഇല്ലാത്ത വ്യക്തികളായാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് വളരുന്നത് നമുക്ക് അങ്ങനെ ഒരു തലമുറയ വാർത്തെെടുക്കാതെ നമുക്ക് നമ്മുടെ പാരമ്പര്യ രാമനാട്ടം കൃഷ്ണനാട്ടം പോലുള്ള നമ്മുടെ കലാരൂപങ്ങൾ നമുക്ക് നമുക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അവയെ പുതിയതായി പുതിയതായി നമുക്ക് അത് ചാർട്ട ചെയ്തു എടുക്കുന്നതിനും അതിന് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും ചെയ്യാം